മൃഗങ്ങളിൽ മൃഗങ്ങൾക്ക് പകരുന്ന പകർച്ചവ്യാധി രോഗങ്ങൾ വരാറുണ്ട് ഇപ്പം ഇപ്പോൾ പശുവിനാണെങ്കിൽ കുളമ്പുരോഗം അതിൻ്റെ പ കുളമ്പുരോഗം വരുവാണെങ്കിൽ അതിൻ്റെ പാൽ ആ സമയത്ത് ഉപയോഗിക്കരുതെന്നാണ് അപ്പോൾ നമുക്ക് മനുഷ്യരിൽ അതിൻ്റെ അനുസരിച്ച് ഓരോ ഇൻഫെക്ഷൻസ് ഉണ്ടാകും പിന്നെ പട്ടി ഒക്കെ ആണെങ്കിൽ കടിച്ചാൽ പേ പേവിഷബാധ എന്ന് പറയും അതിനൊക്കെ അതിൻറേതായ രീതിയിലുള്ള വാക്സിനേഷനുകൾ കൊടുക്കണം ഈ വാക്സിനേഷനുകൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പേ വിഷബാധയിൽ നിന്ന് ഒഴിവ് ഒഴിഞ്ഞുമാറാൻ പറ്റുള്ളൂ എങ്കിലും പട്ടി കടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഒരു ഫോ ഫോർ ടൈംസ് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ആ ഇഞ്ചക്ഷൻ മുടങ്ങാതെ എടുക്കണം അത് ഒരുമാസത്തെ ഡ്യൂറേഷൻ കൊണ്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് അത് നമ്മൾ കൃത്യമായിട്ട് എടുക്കണം പട്ടിനെ വാക്സിൻ എടുത്തെങ്കിലും പട്ടി കടിച്ചെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വാക്സിൻ എടുക്കേണ്ടതുണ്ട് മൃഗങ്ങൾക്ക് പശു ആട് എന്നിവയൊക്കെ വരുമ്പം അസുഖമുള്ള സമയങ്ങളിൽ അവരുടെ പാൽ കഴിവതും ഉപയോഗിക്കാതിരിക്കുക മാംസം ഉപ ഉപയോഗിക്കാതിരിക്കുക ഇപ്പം കോഴിക്ക് അവർക്ക് ദീനം വരുന്നു കോഴിക്ക് ആദാരോ പക്ഷിപ്പനി എന്ന് പറയുമ്പം ഇപ്പം ഗവൺമെൻറ് തന്നെ തീരുമാനം എടുത്ത് അതിൻ്റെ പക്ഷികളെ കൂട്ടമായിട്ട് കൊല്ലുന്ന ഒരവസ്ഥ നമ്മളിപ്പം കാണുന്നുണ്ട്